സാധാരണ ഒരു പാത്രം കഴുകുന്നത് കഴുകാൻ വേണ്ടിയിട്ട് സോപ്പുണ്ട് ആ സോപ്പുപയോഗിച്ച് ചകിരി ചകിരിയിലേയ്ക്ക് ആ സോപ്പിട്ടിട്ട് നല്ലോണം പാത്രത്തിന്റെ എല്ലാ വശവും കഴുകുക തേച്ച് കഴിഞ്ഞിട്ട് പുറവും അകവും എല്ലം തേച്ചു കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് കഴുകിക്കളയലാണ് പതിവ് പിന്നെ എണ്ണമയം ഉള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഒന്ന് നമ്മളിച്ചിരി കരി പാത്രം കഴുകും നമ്മളടുപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കരി ചാരം ഉണ്ടാവുമല്ലോ ആ ചാരം വച്ച് ഒന്ന് കഴുകി ഒന്ന് നല്ലോണം ഉരച്ചു കഴിഞ്ഞ് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ എക്സോ എക്സോ സോപ്പ് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടിയും പാത്രത്തിന്റെ ഉൾഭാഗവും പുറംഭാഗവും എല്ലാം ഒന്നുകൂടിയും കഴുകി ഒന്നുകൂടിയും തേച്ച് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുകയാണ് ചെയ്യുന്നത്